ആ വരൂ വരൂ വരൂ ആ ഒക്കെ ആ ഒക്കെ ഏത് ക്ലാസ്സിലേക്ക് ആണ് ആ ഒക്കെ അവർ ഇപ്പൊൾ വേറെ മറ്റേ രണ്ടാം ക്ലാസ്സിൽപ്പഠിക്കുന്ന ആളെ ആളെ ഇപ്പോൾ വേറെ എവിടെയെങ്കിലും ചേർത്തിട്ടുണ്ടായിരുന്നോ വേറെ എവിടെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് ആൾ

ആ ഒക്കെ ഒക്കെ സ്കൂൾ ചൂസ് ചെയ്തതിന് താങ്ക് യു ഓ അതിന് നമുക്ക് ഇപ്പോൾ ഫീസ് ഫീസ് വന്നിട്ട് മാസം ഒരു എൽ കെ ജി പഠിക്കണ കുട്ടിക്ക് എണ്ണൂറ് രൂപ ആണ് മാസം ഫീസ് വരുന്നത് ഒരു മാസത്തെ ആ രണ്ടാം ക്ലാസ്സ് വരുമ്പോൾ ആയിരത്തി എണ്ണൂറ് അത്രയും വരും മന്ത്ലി ആയിട്ട് അടക്കണം എങ്കിൽ മന്ത്ലി ആയിട്ട് അടക്കാം അല്ലെങ്കിൽ കോട്ടേർലി ആയിട്ട് അടക്കുകയാണെങ്കിൽ കോട്ടേർലി ആയിട്ട് അടക്കാം ഇയർലി ആയിട്ട് അടക്കുകയാണെങ്കിൽ ഇയർലി ആയിട്ട് അടക്കാം ഡൊണേഷൻ ഇല്ല പക്ഷെ നമ്മളെ ഒരു കോഷൻ ഡെപ്പോസിറ്റ് പോലത്തൊരു എമൗണ്ട് ഉണ്ട് അതിപ്പോൾ അവർക്ക് ഇപ്പോൾ എൽ കെ ജിക്ക് ആണെങ്കിൽ വന്നിട്ട് രണ്ടായിരം കോഷൻ ഡെപ്പോസിറ്റ് രണ്ടാ ക്ലാസിൻ്റെ ആവുമ്പോൾ നാല് എണ്ണൂറ് ആണ് വരുന്നത് അത് അവർക്ക് നമുക്ക് ഈ ഇയർ എന്റില് നമുക്ക് എപ്പോഴാണോ ഇവർ ക്ലാസ് നിർത്തുന്നത് അല്ലെങ്കിൽ ആ സമയത്ത് വന്നിട്ട് നമുക്ക് തിരിച്ചു മേടിച്ചിട്ട് പോവാം നിങ്ങൾ ഇടയ്ക്ക് നിർത്തിയിട്ട് പോവുകയാണെങ്കിൽ അപ്പോഴും മേടിക്കാം പ്രശ്നം ഒന്നും ഇല്ല ആ അല്ല നമുക്ക് പറയാൻ പറ്റില്ല സാഹചര്യം ആണല്ലോ ആ ഒക്കെ സ്കൂൾ ബസ്സ് ഉണ്ട് സ്കൂൾ ബസ്സിന് നമുക്ക് മന്ത്ലി ഇപ്പോൾ കിലോമീറ്റർ നോക്കിയിട്ടാണ് ചാർജ് വരിക ഏകദേശം നമുക്ക് വീട്ടീൻറ അവിടേക്ക് എത്ര കിലോമീറ്ററ് വരും

ആ അത്രയേ ഉള്ളു അപ്പോൾ വലിയ ചാർജ് ഒന്നും വരില്ല മാക്സിമം ഒരു മൂന്നൂറ് മൂന്നൂറ്റമ്പത് ഉറുപ്പികയേ വരുള്ളൂ ആ ബസ്സും കാര്യങ്ങളും അത് നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഇത് അവിടെ ചെന്ന് ഓഫീസിൽ ചെന്ന് ഫീസോക്കെ അടച്ച് കഴിയുമ്പോൾ അവർ പറഞ്ഞു തരും ബസ്സിന്റെ ടൈമും കാര്യങ്ങളൊക്കെ അഡ്മിഷൻ ടൈമിലിപ്പോൾ അവരുടെ ബർത്ത് സർട്ടിഫിക്കേറ്റിന്റെ ഒരു കോപ്പി വേണം പിന്നേ ആ ആ നമ്മുടെ രണ്ടാം ക്ലാസ്സുകാരന് ചിലപ്പോൾ ടി സി വേണ്ടി വരും പിന്നെ അവരുട ടി സി ഒക്കെ ഉണ്ടാകുമല്ലോ ആ അത് രണ്ടും മതിയാവും പിന്നെ ഇപ്പോൾ നമുക്ക് ആ അത് മതി ബർത്ത് സർട്ടിഫിക്കേറ്റും ടി സിയും മാത്രം മതി വേറെ ഇപ്പം ഒന്നുമായിട്ട് പ്രത്യേകിച്ച് ഒന്നും വേണ്ട യൂണിഫോം ഇപ്പോൾ ആ അവിടെ ഫീസ് ആ ഫീസ് അടച്ചു കഴിഞ്ഞാൽ ഇപ്പോൾത്തന്നെ അവിടെനിന്ന് നമുക്ക് യൂണിഫോമും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും നമുക്ക് രണ്ട് സെറ്റ് യൂണിഫോം ആണ് പ്രൊവൈഡ് ചെയ്യുക അതിൽ ഒരു സെറ്റ് നിങ്ങൾക്ക് ഫ്രീ ആണ് ഒരു സെറ്റിന് പേ ചെയ്യണം ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ നമ്മളെ ക്ലാസ്സ് എന്തായാലും നെക്സ്റ്റ് വീക്ക് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ അതിന് രണ്ടു ദിവസം മുമ്പ് വന്നിട്ട് ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും ഒക്കെ മേടിച്ചിട്ട് പോവുക ഇല്ല നമുക്ക് ആദ്യത്തെ ഒരാറ് ആറ് നോട്ട് ബുക്ക് ഫ്രീ ഉണ്ടാവും പിന്നെ നിങ്ങൾ കാശ് കൊടുത്ത് മേടിക്കേണ്ടി വരും എല്ലാ സബ്ജക്റ്റിനും എല്ലാ സബ്ജക്റ്റിനും ഓരോ നോട്ട് ബുക്ക് വച്ചിട്ടു ഫ്രീ ഉണ്ട് ആ ഓക്കേ വേറെ എന്തെങ്കിലും അറിയാൻ ഉണ്ടോ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു